ഹലോ അതേ ആരായിരുന്നു അ അഭിജിത്തിൻ്റെ പപ്പാ ആ മനസ്സിലായി മനസ്സിലായി സുരേഷ് അ എന്തായിരുന്നു വിളിച്ചത് ആ ഹാ ആ പറഞ്ഞോളൂ ഓക്കേ ആ അനുവാദം തരത്തില്ല നമുക്കറിയാം സ്കൂൾ സമയങ്ങളിൽ ഒരിക്കലും കുട്ടികൾക്കനുവാദം ഇവിടെ നിന്നു കൊടുക്കാറില്ല നിങ്ങളൊന്നെങ്കിൽ ക്രിസ്മസിനോ ഓണത്തിൻ്റവധിക്കോ പോകുക അല്ലെങ്കിൽ വലിയ അവധിക്കോ പോകുക സാധാരണ അങ്ങനെയാണെല്ലാ പേരൻസും അത് ചെയ്യുന്നത് അപ്പം അങ്ങനെ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നോരോരുത്തരോരോരുത്തർ അങ്ങനെ നമ്മുടടുത്ത് വരും നമ്മളാകപ്പാടെ അവധി കൊടുക്കുന്നത് പനിയാകുകയോ അല്ലെങ്കിലെന്തെങ്കിലും അപകടം പറ്റുക ആശുപത്രിയിലായിരുന്നാൽ മാത്രമേ നമുക്ക് അറ്റൻ്റൻസ്സ് കൊടുക്കാൻ പറ്റത്തുള്ളു അതു കൊണ്ട് അത് നിങ്ങൾ അന്നേരം നിങ്ങളെന്തു കൊണ്ടാണ് അങ്ങനെ ഈ സമയത്ത് അറേയ്ഞ്ച് ചെയ്തത് ആ ഹ ഹ ആ പ്രത്യേകിച്ച് പിള്ളേർക്ക് ഇപ്പം മോഡേൺ എക്സാം വരുന്നു വരാൻ പോകുന്നു അപ്പം അത് അവർക്ക് അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ കൂടുതൽ ടീച്ചേഴ്സിന് നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് ടീച്ചേഴ്സ് അതു ചെയ്യാൻ പോകുകയാണ് അപ്പം കുട്ടികളൊക്കെ ഇങ്ങനെ ആബ്സെൻ്റ് ആയിക്കഴിഞ്ഞാൽ അതൊക്കെത്തന്നെയാണത് ഭയങ്കര ബുദ്ധിമുട്ടാകുന്നത് വലിയ പരീക്ഷയ്ക്ക് അവർക്ക് അതിനുള്ള മാർക്ക് കുറയും അതു കൊണ്ടാണ് നമ്മളിത്രയും നിർബന്ധം പിടിക്കുന്നത് നിങ്ങൾ ഉം ആ അതേയതെ അതെ നിങ്ങൾക്ക് അതെ ക്രിസ്മസിൻ്റെ അവധിക്കോ അല്ലെങ്കിൽ വേനലവധിക്കോ ഒക്കെ നിങ്ങൾക്കത് അതിൻ്റെ പാക്കേജുകൾ നിങ്ങൾക്ക് കിട്ടും ഏ അപ്പം അത് നിങ്ങൾ ഇതിൻ്റെ ഏജൻ്റ്മാരോടു സംസാരിക്കുകയാണെങ്കിൽ നിങ്ങക്കതിൻ്റെ പാക്കേജ് കിട്ടും അപ്പോൾ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും ഓക്കെ അ അതുകൊണ്ട് നിങ്ങൾ എവിടെ എങ്ങോട്ടാണ് ടൂർ പോകാനുദ്ദേശിക്കുന്നത് ആയില്ല അ ഡൽഹിക്കാണ് നിങ്ങൾ പോകുന്നത് അപ്പം ആ അത് തീർച്ഛയായിട്ടും നിങ്ങൾക്ക് മറ്റു സമയത്ത് ഒരിക്കൽ പോകാൻ സാധിക്കും ആ തീർച്ഛയായിട്ടും കുട്ടികൾക്ക് ട്യൂഷനുമൊക്കെ വരുന്നുണ്ട് അപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ കൂടെത്തന്നെ സ്കൂളിൻ്റെ സമയം കഴിഞ്ഞിട്ടും കുട്ടികൾക്ക് സ്പെഷ്യൽ ക്ലാസ്സൊക്കെ വെക്കാൻ നമ്മളുദ്ദേശിക്കുന്നുണ്ട് അപ്പം ആ സമയത്ത് നമ്മൾ കുട്ടികൾക്ക് കുറവെന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടുമത് പിന്നെ ടൂറിൻ്റെ ക്ഷീണമൊക്കെ കുട്ടികൾക്ക് വരും പിന്നീട് അവർക്ക് സ്കൂളിലേക്ക് വരാനുള്ള താല്പര്യം കുറയും അപ്പം അതു കൊണ്ടൊക്കെ ഈ പരീക്ഷയുടെ സമയമൊക്കെ ആയതു കൊണ്ട് നിങ്ങൾ പരമാവധി സഹകരിക്കണം നിങ്ങൾ അത് കുറച്ചും കൂടിയൊക്കെ ചെയ്യണം കേട്ടോ ഓക്കെ ആ ശരി ശരി ടാങ്ക് യൂ അ